ആരോഗ്യത്തിനാദ്യമായി നമ്മൾ വ്യക് വ്യക്തി ശുചിത്വം പാലിക്കുക അതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ കൃത്യനിഷ്ഠയോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക കാലത്തെ വളരെ നേരത്തെ എണീക്കുന്നതാണ് നല്ലത് സൂര്യൻ ഉദിക്കാറാകുമ്പോൾ തന്നെ നമ്മൾ എണീക്കുക എണീറ്റു കഴിഞ്ഞാൽ കുറച്ചു നമ്മളേക്കാൾ ചെയ്യാൻ പറ്റുന്ന എക്സൈസുകൾ ചെയ്യുക അതിനു ശേഷം മാത്രം വെള്ളം കുടിച്ച് ആഹാര കാര്യങ്ങളിലേക്കു പിന്നെ പോകുക പിന്നെ എന്താണ് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ചെയ്യാനുദ്ദേശിക്കുന്ന അതു കൃത്യമായിട്ട് രാവിലെ തന്നെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പം അത്രത്തോളം നല്ലതായിരിക്കും പിന്നെ ആരോഗ്യമെന്നു പറയുകയാണെങ്കിൽ ആഹാ ആരോഗ്യം നമ്മൾ ത തന്നെ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നതാണ് നല്ലത് അവനവൻ്റെ ശരീരത്തിനു വേണ്ടി നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുക നടക്കുക പിന്നെ വീട്ടിലെ കുറച്ചു കുറച്ചു കാര്യങ്ങൾ നോക്കുക ജലദോഷം മറ്റും വരികയാണെങ്കിൽ അതിനുള്ള ഒറ്റമൂലികൾ പനിക്കൂർക്ക അതെല്ലാം ഇട്ടു കാപ്പിയുണ്ടാക്കി കുടിക്കുക വയറ്റിനെന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഇഞ്ചി നീരോ വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളുപയോഗിച്ച് പോകുക വയറ്റിനാണ് നമുക്കു പ്രധാനമായിട്ടും വേറേന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുടങ്ങൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതു വളരെ നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് വ്യക്തി ശുചിത്വം പാലിച്ച് ആരോഗ്യം നിലനിർത്തി ഈ രീതിയിൽ മുൻപോട്ടു പോയാൽ നമുക്ക് നല്ലതായിട്ട് തന്നെ പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്